രാഷ്ട്രീയംന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് ജനങ്ങളുടെ വളർച്ചക്കും സമൂഹത്തിൻ്റെ വളർച്ചക്കും വേണ്ടിയാണ് രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും നില കൊള്ളേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ വളർച്ചയേക്കാളുപരി സ്വന്തം പാർട്ടികളുടെ വളർച്ചക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പാർട്ടികൾ ശ്രമിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അതുപോലെ തന്നെ രാഷ്ട്രീയം വഴി പണം ഉണ്ടാക്കാനും പല രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയവും രാഷ്ട്രീയപ്പാർട്ടികളുംന്ന് പറയുന്നത് ഇന്ന് പണമുണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമാണ് പണ്ടോക്കെ രാഷ്ട്രീയംന്ന് പറയുന്നത് ഒരു സേവനമായിരുന്നു പക്ഷേ ഇന്ന് ഒരു സേവനം എന്നതിലുപരി പണമുണ്ടാക്കാനുള്ള ഒരു ജോലിയായി ഇന്ത്യയിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ രാജ്യം ആയതു കൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് ഏറെയാണ് അത് സ്വാതന്ത്ര്യം ഇഷ്ട്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരെ ഭരിക്കേണ്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് പക്ഷേ ഇത്തരം അവകാശങ്ങളും അധികാരങ്ങളും ചിലർ ദുരുപയോഗം ചെയ്യുകയും മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിലാണ് രാജ്യത്ത് കുറ്റകൃത്യങ്ങളും അഴിമതികളും നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ജനാധിപത്യം വഴി തിരെഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ നല്ലവരാകണമെന്നില്ല അവർ അവർക്ക് വേണ്ടി ചിലപ്പോൾ കാലക്രമേണ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കാം ജനാധിപത്യത്തിന് നന്മയും ന തിന്മയും ഉണ്ട് അതായത് നല്ല വശവും മോശം വശവും ഉണ്ട് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരവസരം ലഭിച്ചാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും രാഷ്ട്രീയത്തിൻ്റെ അർത്ഥമെന്താണ് ഇന്നത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും ആദ്യകാലഘട്ടങ്ങളേതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശരിയായ രീതിയിലാണോ അല്ലെങ്കിൽ ശരിയായ നയങ്ങളും രീതികളും ഉപയോഗിച്ചാണോ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയവും പ്രവർത്തിക്കുന്നത് അ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടീട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിന് ഒരു നല്ല വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു നല്ല മുഖ്യമന്ത്രിയും അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനാഗ്രഹിക്കുന്നു ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടീട്ടുള്ള ധൈര്യവും പ്രചോദനവും താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം